മരുന്നുകൾ താങ്ങാവുന്ന വിലയില് ലഭിക്കാറുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് നമ്മള് അപ്രോച്ച് ചെയ്യുന്ന ഓരോ മേഖലയിൽ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന ഓരോ ആശുപത്രീല് അനുസരിച്ചിരിക്കും ഗവർമെൻറ്റിലൊക്കെ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാല് മരുന്നിന് ഇളവ് നൽകാറുണ്ടവര് പക്ഷെ പ്രൈവറ്റിലൊക്കെ പോകുന്ന സമയത്ത് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് വളരെ കത്തിവെക്കുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ മരുന്നുകൾക്ക് ചില സ്ഥലങ്ങളില് മരുന്നുകൾക്ക് വില കുറയലുണ്ട് ചില സ്ഥലങ്ങളില് കൂടുതലുണ്ട് അങ്ങനെയൊക്കെയാണ് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ ആ ഈ വൈദ്യശാലകള് അതുപോലെ അതായത് ആയുർവേദത്തിൻ്റെ കുറേ ശാലകളുണ്ടാകുമല്ലോ അവിടെയൊക്കെ നമുക്ക് സൗജന്യമായിട്ട് മരുന്നുകളൊക്കെ ലഭിക്കലുണ്ട് വരുമാനത്തിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ചില സമയങ്ങളില് മരുന്നിനായിട്ട് ചിലവഴിക്കേണ്ട അവസ്ഥ വരലുണ്ട്